വിപണിയില് നമുക്ക് ഒത്തിരിയേറെ പല മോഡലുകളിലുള്ള ഡ്രെസ്സുകള് കിട്ടും ഏത് കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഷോറൂമിൽ ചെന്നാല് നമുക്ക് പല തരത്തിലുള്ള ഡ്രസ്സുകള് കിട്ടും നമുക്കിഷ്ടപ്പെട്ട മോഡലുകളായിരിക്കാം പക്ഷെ നമ്മുടെ നെയ്ത്ത് നമ്മള് നെയ്തെടുത്തുന്ന എടുക്കുന്ന വസ്ത്രമെന്ന് പറഞ്ഞാല് അതേറ്റവും കൂട്തലും കയ്യും കൊണ്ട് നെയ്യുന്ന വസ്ത്രങ്ങൾ ആ എന്താ പറയുക ഏറ്റവും കൂടുതല് നമുക്ക് ചൂടിനെ ചൂട് കാലത്താണെങ്കിൽ നല്ല തണുപ്പും തണുപ്പ് കാലത്താണെങ്കിൽ നല്ല ചൂടുമാണ് നമ്മുടെ ഖാദി വസ്ത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഞാനിപ്പം ഖാദി ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഏറ്റവും കൂടുതലാളുകള് ഖാദിയുടെ വസ്ത്രം ഉപയോഗിക്കാനായിട്ടാണ് ഇപ്പോൾ കൂടുതലും താല്പര്യപ്പെടുന്നത് പണ്ട് കാലത്ത് ഖാദി ഉപയോഗിച്ചുകൊണ്ടിരുന്നവര് ഇപ്പം ഇട കാലങ്ങളിലത് നിർത്തിയിരുന്നു അവര് വേറെ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി അപ്പം പക്ഷെ എന്നാലും മോള് അവര് പറയുന്നൊണ്ട് ഇന്നത്തെ കാലാവസ്ഥയുടെ അനുകൂലമായിട്ട് കാലാവസ്ഥയെ വച്ച് നോക്കുമ്പോൾ നമുക്കേറ്റവും കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഖാദി വസ്ത്രങ്ങളുപയോഗിക്കാനാണ് അത് മിഷൻ വർക്കല്ല ഏറ്റവും കൂടുതലും കൈ കൊണ്ട് തന്നെ നെയ്തെടുക്കുന്നതായത് കൊണ്ട് പട്ട് നൂലിൻ്റെ ഇതിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന നൂലുകളൊക്കെ ആയത് കൊണ്ട് അതിനെ ഒത്തിരി ശരീരത്തിന് ചിലർക്കൊക്കെ അലർജി ഉണ്ടാകുന്നുണ്ട് ചൊറിച്ചില് അങ്ങനേ ചൂട് കൂട്തല് ചൂട് കുരുവ് അങ്ങനെ ഉള്ള ഒത്തിരി അസ്വസ്ഥതകളുണ്ടാകുന്നവർക്ക് ഏറ്റവും കൂടുതലും ഇപ്പം അങ്ങനെ ഉള്ളവരൊക്കെ കൂടുതലും ഖാദിയുടെ വസ്ത്രത്തിലേക്കാണ് മാറിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ബെഡ്ഷീറ്റുകള് അതുപോലെ തന്നെ പുതപ്പുകൾ ഖാദി എന്താ പറയുക വെള്ള മുണ്ട്കള് വെള്ള ഷർട്ട്കള് അങ്ങനെ നേരത്തേ ഒക്കെ വെള്ള മാത്രമെ ഉണ്ടായിരുന്നുള്ളു ഇപ്പം നമുക്കത് കളർ ഡ്രെസ്സുകളൊക്കെ ഇതായിട്ട് മാറുന്നത് കൊണ്ട് സാരികള് കോട്ടൺ സാരികളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ആണ് ഖാദി വസ്ത്രം ധരിക്കാൻ വേണ്ടി അപ്പം മറ്റ് വസ്ത്രത്തെകാലും ഒക്കെ മറ്റ് തുണികൾ നമുക്ക് കൂട്തലും തുണിത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളു തയ്ച്ചത് വളരെ കുറവായിരിക്കും റെഡിമേയ്ഡ് വസ്ത്രങ്ങൾ മേടിക്കാൻ ചെല്ലുന്നവർക്ക് മറ്റ് പോളിസ്റ്ററായിട്ടും ഷിഫോണായിട്ടും അങ്ങനെ ഉള്ള വസ്ത്രങ്ങളായിരിക്കും കിട്ടുന്ന പക്ഷെ നമ്മുടെ ഖാദിയിൽ തുണിത്തരം മാത്രവേ ഉള്ളു തയ്ക്കാനായിട്ട് പോകണം അതുകൊണ്ടാണ് കൂടുതലും ചിലരൊക്കെ തയ്ക്കണ്ടേ എന്നുള്ള ഇതില് തുണി മേടിച്ചത് കൊണ്ട് തയ്ക്കാൻ പോകണ്ടേ എന്നുള്ള ഒരു ഇത് ചിന്താ ഗതിയിൽ മാറുന്നവരാണ് കൂടുതലും റെഡിമേയ്ഡ് വസ്ത്രവെടുക്കുന്നത് എന്നാല് ഇത് ഖാദി ഉപയോഗിച്ച് അതിനെ കൂടുതലായിട്ടും മനസ്സിലാക്കിയവര് അത് കൂടുതലായിട്ട് ഉപയോഗിച്ചവരതിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കിയവര് ഒരിക്കലും ഖാദി വസ്ത്രം ഉപേക്ഷിക്കില്ല കൂടുതലും ഖാദിയിലേക്ക് തന്നെ തിരിച്ച് വരുന്നവരുണ്ട് ഖാദി ഉപയോഗിച്ചിരുന്നിട്ട് ഖാദിയിൽ നിന്നും മാറിയവര് തന്നെ ഇപ്പഴും കൂടുതല് ഖാദി വസ്ത്ര ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റിബേറ്റുകളൊക്കെ വരുന്ന സമയങ്ങളിൽ എട്ടും പത്തും പതിനഞ്ചും ചിലരൊക്കെ ഇരുപത്തഞ്ചും മുണ്ടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട് റോള് കണക്കിന് ഷർട്ടിനൊക്കെ ഷർട്ട് പീസുകളൊക്കെ വാങ്ങി കൊണ്ട് പോകുന്നവരുണ്ട് അപ്പം എല്ലാവരും കൂടുതല് താല്പര്യപ്പെടുന്നത് കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനാണ് അതുപോലെ കസേ ചണം ചണത്തിൻറ്റേ ജ്യൂട്ട് വസ്ത്രങ്ങള് അങ്ങനെ ഖാദിയുടെ ഉൽപന്നങ്ങളാണേറ്റവും കൂടുതലും എല്ലാവരും ഉപയോഗിച്ച് വരുന്നത് ചൂടിനെ ഏറ്റവും കൂടുതലും ചൂടിനെ അവര് ആ ഒര് ചൂടിൽ നിന്നും മോചനം കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഖാദി വസ്ത്രം ധരിച്ചാല് നമുക്ക് ചൂട് കാലത്ത് എത്ര സുഖമായിട്ട് നടക്കാമെന്നാണ് കൂടുതലും എല്ലാവരും പറയുന്നത്